ആ അതെ അതെ പറഞ്ഞുകൊള്ളൂ കാര്യങ്ങൾ കേക്ക് നമ്മൾ അറേഞ്ച് ചെയ്യണം ഓക്കെ ഓക്കെ അപ്പം റൂംസ് ഇവിടെ തന്നെ ബുക്ക് ചെയ്യാം മുപ്പത്തഞ്ച് പേരെയോ ഓക്കെ അപ്പോൾ റൂമ് ഡോർമെറ്റ്റി വേണോ അതോ സെപ്പറേറ്റ് റൂംസ് വേണോ ഓക്കെ അപ്പോൾ ഒരു എട്ട് റൂംസ്

ഏ സിയാ ഏ സിയാണോ നോണ് ആണോ ആ ഓക്കെ ഓക്കെ ഏ സിയാണ് ഇനി ഫുഡ്ഡിൻ്റെ കാര്യം ഫുഡ്ഡ് നമുക്ക് ഇവിടെ രാവിലെയുണ്ട് ഉച്ചക്കും ഉണ്ട് വൈകുന്നേരവും ഉണ്ട് പിന്നെ പാർട്ടിക്ക് സ്പെഷ്യൽ സ്പെഷ്യൽ ഫുഡ്ഡ് ആണ് ഏഴ് മണിയാകുമ്പോൾ ഓക്കെ ഓക്കെ അത് ഓക്കെയാണ് അപ്പോൾ എന്നത്തേക്കാണ് പരുപാടി എന്നത്തേക്കാണ് കൃത്യം ഒന്ന് തീയതി പറയുമെങ്കിലും നമുക്ക് റൂമ് എല്ലാം ഒന്ന് ബുക്ക് ചെയ്ത് വയ്ക്കാമായിരുന്നു ഈ മാസം പതിമൂന്നാം തീയതി ഓക്കെ സാർ ബുക്ക് ചെയ്യട്ടെ റൂം ബുക്ക് ചെയ്യാം ഓക്കെ ആ ഓക്കെ ഉണ്ടല്ലോ പാർട്ടി ഫുഡ്ഡ് അല്ലാതെ എക്സ്ട്രാ ഫുഡ്ഡ് ഉണ്ട് നിങ്ങൾ പറയുന്ന ഫുഡ്ഡ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും എന്താണ് പറയുന്ന ഫുഡ്ഡ് ആ അല്ല പാർട്ടി നടക്കാൻ പ്രത്യേകിച്ച് ഹാള് ഉണ്ട് വലിയ കോൺഫെറൻസ് ഹാള് പാർട്ടി ഹാള് ഡൈനിങ്ങ് ഹാള് പ്രയർ ഹാള് നിങ്ങൾക്ക് ഇഷ്ടം ഉള്ള കാര്യങ്ങളെല്ലാം നടത്താൻ പറ്റുന്ന ഒരു വലിയ ഹോട്ടൽ തന്നെയാണ് അമൃത ഹോട്ടൽ ആ ഓക്കെ ഓക്കെ ചപ്പാത്തിയോ പൂരിയോ അങ്ങനെ എന്തെങ്കിലും മതിയല്ലോ ഓക്കെ അ ഫുഡ്ഡ് നല്ലതാണ് ഫുഡ്ഡ് നല്ലതാണ് ഫുഡ്ഡ് നല്ലതാണ് നിങ്ങൾ ഗൂഗിൾ കയറി ജസ്റ്റ് ഒന്ന് സേർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഫുഡ്ഡിൻ്റെ കാര്യത്തിൽ ഫൈ സ്റ്റാർ ആണ് ഓക്കെ അപ്പോൾ ഉച്ചക്ക് ഉച്ചക്ക് ഫുഡ്ഡ് ബിരിയാണിയാണോ മന്തിയാണോ എന്താണ് ചിക്കൻ ബിരിയാണി ഓക്കെ ഓക്കെ ഓക്കെ അപ്പം ഇതിനെല്ലാം കൂട്ടി സ്പെഷ്യൽ സ്പെഷ്യൽ ഡിഷ് ഓക്കെ ഓക്കെ ഇവിടെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ചൈനീസ് കുഴിമന്തിയുണ്ട് അത് ന്യൂ ഐറ്റം ആണ് ചൈനീസ് കുഴിമന്തി ഓക്കെ സാർ പിന്നെ നമുക്ക് ഇപ്പോൾ പാർട്ടി ബുക്ക് ചെയ്തായിരുന്നല്ലോ അപ്പോൾ ചെറിയൊരു അഡ്വാൻസ് ചെയ്യേണ്ടി വരും ഇപ്പോൾ നിങ്ങൾ പറൻ ഫുള്ള് എമൗണ്ട് നമുക്ക് പരിപാടി കഴിഞ്ഞ ശേഷമേ നമുക്ക് കൃത്യം പറയാൻ ഒക്കുകയുള്ളൂ ഒരു അഡ്വാൻസ് വേണമെങ്കിൽ പറഞ്ഞ് തരാം അഡ്വാൻസ് ഒരു ഓ ഒരു ഒമ്പത് രൂപ ഒമ്പതിനായിരം രൂപ

ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ സൗകര്യങ്ങൾക്കൊന്നും ഒരു കുറവും ഉണ്ടാവില്ല ഫുഡിനും ഒരു കുറവും ഇല്ല ഫുഡ് ഒക്കെ അൺലിമിറ്റഡ് ഫുഡ്ഡ് ആണ്

ആ ഓക്കെ ഓക്കെ ഓക്കെ അതെല്ലാം ക്ലിയർ ആണ് നിങ്ങൾക്ക് നിങ്ങൾ എപ്പഴ് പതിമൂന്നാം തീയതിയല്ലേ അപ്പോൾ ഇവിടെ ബുക്ക്ഡ് ആണ് ഞാൻ

ഓക്കെ പതിമൂന്നാംതീയതി പതിമൂന്നാംതീയതി അടുത്ത തിങ്കളാഴ്ച്ച ഓക്കെ അടുത്ത തിങ്കളാഴ്ച്ച ഓക്കെ ഓക്കെ എന്നാൽ